വയനാട് ജില്ലയിലെന്നു പറയുന്നത് അവിടെ ഭയങ്കര അടിപൊളി വ്യൂവും കാഴ്ചകളും മലകളും കുന്നുകളും അരുവികളും ഇല്ല ഫോറസ്റ്റുകളും എന്നൊക്കെ പറഞ്ഞപോലെ അടിപൊളി കാഴ്ചകൾ കാണാനുണ്ട് പിന്നെ മറ്റു മറ്റുള്ളവർക്ക് എങ്ങനെ ബാധിക്കും എന്നു പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റിലായാലും മറ്റു ജില്ലയിൽ നിന്നും ആളുകൾ എല്ലാം സന്ദർശിക്കാനും കാണാനായിട്ടും വരുമ്പോൾ അവർ ഇപ്പോൾ വീ ഇപ്പം ഉദാഹരണത്തിനായിട്ട് വി തിന്ന വേസ്റ്റ് നിക്ഷേപിക്കാൻ കുറെ പേർ നിക്ഷേപിക്കാറുണ്ട് കുറെ സ്ഥലത്ത് നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നതെന്ന് പറയുന്നത് അതൊരു പൊല്യൂഷൻ ഞങ്ങൾ മാലിന്യം എങ്ങനെയൊക്കെ നീക്കാൻ ശ്രമിക്കുന്നോ അവരതുപോലെ അവിടെ ഇടാനാണ് ശ്രമിക്കുന്നത് സോ അത് വലിയ കാര്യത്തിൽ ജനങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും വലിയ ദോഷം തന്നെ ഉണ്ടാക്കുന്നുണ്ട്